ഞങ്ങളുടെ വീട്ടിൽ കോഴികളും താറാവും ഒക്കെ വളർത്തുന്നുണ്ട് കോഴികള് ഒരു പത്തെണ്ണത്തോളവും താറാവിനേയും താറാവും ഉണ്ട് പത്തെണ്ണത്തോളം അതിനെ വളർത്തി അത് നല്ല രീതിൽ കോഴികളാണെങ്കിലും വളർത്തിയെടുത്ത് അതിൻ്റെ മുട്ട എടുക്കാനും ഇപ്പോൾ താറാവിനെ ആണേലും വളർത്തുന്നതിനും മുട്ട എടുക്കാനും സാധിക്കുന്നുണ്ട് അത് കോഴികൾ കോഴിമുട്ട ആണേലും ആറ് രൂപ പ്രകാരവും ഇത് ആറും ഏഴും രൂപയൊക്കെ ആകും കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആണെങ്കില് താറാവിൻ്റെ ആണേലും താറാമുട്ടയും പാ പത്ത് രൂപയ്ക്കും ഒക്കെയാണ് വിൽക്കുന്നത് പിന്നെ അങ്ങനെ ഒക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റും വീട്ടാവശ്യത്തിനാണേലും എടുക്കാൻ പറ്റും വീ കഴിഞ്ഞ ഇടയിലാണെങ്കില് ഇത് ഇതിനെ ഒക്കെ അസുഖം വന്നാപ്പോഴത്തേക്ക് അത് അതിനെ നശിപ്പിച്ച് കളയുകയും ഒക്കെ ചെയ്യുവായിരുന്നു അപ്പോൾ നമുക്ക് ഒത്തരി ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മളത് മേടിക്കുകയും അതിന് അനുസരിച്ചുള്ള അതിനെ അം നല്ല രീതീയിൽ അതിനെ പിന്നെ പനിയില്ലാത്ത മാതിരിയതിനെയെല്ലാം സംരക്ഷിക്കയും പിന്നെ അതിനനുസരിച്ച് ഉള്ള നേട്ടം കൈവരിക്കുകയും ചെയ്യുവായിരുന്നു അങ്ങനെ കോഴികളും താറാവും ഒക്കെ നല്ലൊരു നേട്ടം തന്നെയാണ് നമ്മുടെ അവനവൻ്റെ വീട്ടിൽ വളർത്തുന്നത് പിന്നെ മുട്ടയാണേലും നമ്മുടെ ആവശ്യങ്ങൾകെകെ എടുക്കാൻ സാധിക്കും വീട്ടിലെ ആവശ്യത്തിനാണേലും കൊടുക്കാനും അങ്ങനെ എല്ലാം നല്ല രീതിയിൽ സാധിക്കും